ആളുകൾക്ക് കാണാനായിട്ട് ഫോട്ടോഗ്രാഫുകൾ ഒക്കെ പ്രദർശിപ്പിക്കാറുണ്ടോ എന്ന് വച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ആദ്യമൊന്നും ഞാൻ അങ്ങനെ പ്രദർശിപ്പിക്കാറില്ലായിരുന്നു കാരണം ആദ്യമൊക്കെ ഞാൻ ജസ്റ്റ് അതായത് ക്യാമറ കയ്യില് കിട്ടിയപ്പം ചെറിയ ചെറിയ അതായത് പൂമ്പാറ്റ ഉറുമ്പ് പിന്നെ ചെടികള് പൂക്കൾ പിന്നെ വീട്ടിലുള്ളവരുടെ ഫോട്ടോസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് എടുക്കുക അപ്പോൾ ആദ്യമൊന്നും വലിയ പിടിത്തമൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ ശെരിക്കും പറഞ്ഞുകഴിഞ്ഞാൽ ഫോട്ടോഗ്രാഫിയൊന്നും പഠിച്ചിട്ടില്ല ജസ്റ്റോര് ക്യാമറ കിട്ടിയപ്പോൾ നമ്മളിങ്ങനെ നല്ല നല്ല ഫോട്ടോസ് ഒക്കെ എടുത്തു അങ്ങനെയുള്ള ഫോട്ടോസ് ഒക്കെ എടുത്ത് എടുത്ത് പിന്നെ അയ്നൊരു അയ്നോട് ഒരു ഭയങ്കര ഒരു ഇൻട്രസ്റ്റ് ആയിട്ടാണ് ഞാൻ പിന്നെ ഫോട്ടോഗ്രാഫി കൂടുതലായിട്ട് പഠിക്കാൻ ശ്രമിച്ചത് അപ്പമെന്ന് വെച്ചിട്ടുണ്ടങ്കിൽ പിന്നെ പിന്നെപ്പിന്നെ ഫോട്ടോയൊക്കെ അത്യാവശ്യം നല്ല ക്ലിക്കായി ഇപ്പം നമ്മളെ ഇൻസ്റ്റയില് ഫെയ്സ്ബുക്കില് അങ്ങനെ വാട്സാപ്പിൽ സ്റ്റാറ്റസായിട്ട് അങ്ങനെയൊക്കെ ഇടുമ്പോൾ എല്ലാവർക്കും ഭയങ്കര നല്ല അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെയായിരുന്നു അങ്ങനെ ഇപ്പോൾ അഭിപ്രായങ്ങളും കാര്യങ്ങളും കണ്ടപ്പോൾ പിന്നെയാണ് ഞാൻ ഇത് ഇങ്ങനെ പ്രദർശനത്തിനൊക്കെ കൊണ്ടുപോകാൻ അതായത് എന്നുവെച്ചാൽ നമുക്ക് ഇപ്പോൾ എക്സിബിഷൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ ആ എക്സിബിഷനിൽ കൊണ്ടുപോകും പിന്നെ ആർട്ട്ഗ്യാലറിയിലൊക്കെ കൊണ്ട് പോകും അപ്പോൾ എന്താ വെച്ചിട്ടുണ്ടങ്കിൽ അങ്ങനെ എല്ലാവരും കണ്ട് നല്ല അഭിപ്രായം പറയുമ്പോൾ നമുക്ക് മനസ്സിന് ഒരു ഭയങ്കര ഒരു സന്തോഷമാണ്